എനിക്ക് ബൈക്ക് യാത്രായെന്നു പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഹസ്ബൻ്റിൻ്റെ കൂടെയാണ് ഞങ്ങൾക്ക് ബൈക്കുള്ള സമയത്ത് ബുള്ളറ്റുള്ള സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് മഴയത്തൊക്കെ പോയിട്ടുണ്ട് ഇരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും ബൈക്കിൽ യാത്രയാണ് കാറിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും മനോഹരം ഞങ്ങളങ്ങനെ ഞങ്ങടെ നാട്ടിലെ ഒരുപാട് കുറച്ച് ഹൈറ്റുള്ള മലകളിലൊക്കെ ഇങ്ങനെ ബൈക്കും കൊണ്ടൊരു അങ്ങനെ ഇതൊക്കെ പോയിട്ടുണ്ട് ഇനി ഹിമാലയത്തിലും കുളുമണാലി അങ്ങനത്തെ സ്ഥലങ്ങളിൽ കർണാടകയിലെ കുറേ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഇനി കുറച്ച് സ്ഥലങ്ങളിലും കൂടെയൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട് ഈ അടുത്ത് തന്നെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു അങ്ങനെയൊന്ന് പോകണം എന്നൊക്കെ വളരേ മനോഹരം പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ബൈക്കിലാണ് പോവുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇരുന്ന് കുറച്ചുനേരം ലോങ് ട്രിപ്പൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും എഞ്ചോയ് ചെയ്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ് പോകുന്നത് ഒരുപാട് ഇഷ്ടമാണ് ബൈക്കിലുള്ള യാത്ര ഞങ്ങൾക്ക് ബൈക്ക് എനിക്കും ഹസ്ബൻ്റിനും ഒരുപോലെ ഇഷ്ടം ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാറുണ്ടായിട്ടുകൂടി ഞങ്ങൾ കാറും സ്കൂട്ടിയും ഉണ്ട് എന്നാലും ഒരു ബുള്ളറ്റും കൂടി ഞങ്ങൾ വാങ്ങിച്ചു അത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടുമാത്രമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ബൈക്കിലുള്ള യാത്ര ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്